തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങള് മധ്യവർത്തികളില്ലാതെ കയറ്റുമതി ചെയ്യാൻ കർഷകരെ സജ്ജമാക്കുന്നത് വളരെ നല്ല കാര്യമാണ് എപ്പോഴും നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ തന്നെയാണ് കാരണം മധ്യവർത്തികളുണ്ടെങ്കില് തങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് നിർബന്ധിതമായി നൽകേണ്ടിവരുന്നു അതിന് ചെയ്യാൻ പറ്റുന്നത് പഞ്ചായത്തുതലത്തില് അല്ലെങ്കില് ജില്ലാതലത്തിലെയൊക്കെ ഇവരുടെ തന്നെ ഓരോ പ്രത്യേക കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെയും ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടാക്കുകയും അവര് അതിൻ്റെ വിലക്കുറവും വിലക്കയറ്റവും എല്ലാം വാട്സ്ആപ്പ് കുട്ടായ്മകൾ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ വഴിയോ അവരെ അറിയിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിളവെടുത്തതിന് ശേഷം നേരിട്ട് ഗവൺമെൻറ്റുമായിട്ട് ഒരു കോൺടാക്റ്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആൾക്കാര് തന്നെ അവ സംഭരിച്ച് അതിൻ്റെ എത്തേണ്ട കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും അവർക്ക് വേണ്ട അതിൻ്റെ വില എത്രയും പെട്ടെന്ന് ബാങ്ക് അക്കൗണ്ടുകൾ വഴി കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്താല് നമ്മുടെ കർഷകരെല്ലാം തങ്ങളുടെ കാർഷികവൃത്തിയിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരാനും അവർ വളരെയധികം തയ്യാറാകും പുതുതലമുറ പോലും യുവതലമുറ പോലും ഇതിന് തയ്യാറാകും എന്നതാണ് എൻ്റെ അഭിപ്രായം കാർഷിക മേഖലയില് അല്ല ഇപ്പോള് നെല്ല് സംഭരണത്തിൽ പോലും കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഈയിടെയെല്ലാം ചർച്ചാവിഷയമായതാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങള് എത്രയും പെട്ടെന്ന് വിറ്റഴിക്കുവാനും അതിന് തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം എത്രയും പെട്ടെന്ന് കൈപ്പറ്റാനും സാധിക്കുകയെന്നതാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ആശ്വാസകരമായ വാർത്തയെന്ന് പറയുന്നത് അതിനുവേണ്ടി എല്ലാവരും അധികാരികൾ കണ്ണു തുറക്കണമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും തന്നെയാണ് പറയുവാനുള്ളത്